പ്രാദേശികമായതോ സംസ്ഥാനത്തിലേതോ അങ്ങനെ ദേശീയ തലത്തിലോ അങ്ങനെ ഇതുവരെ ഇതുവരെ ഒരു ഫോട്ടോഗ്രഫി കോമ്പറ്റീഷനല്ലേൽ ഫോട്ടോഗ്രഫി മത്സരങ്ങളിതുവരെ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിരുന്നാലും എനിക്കതിനുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നാലും ഇത് ചെയ്യാൻ വേണ്ടിയ കാര്യങ്ങളെന്തൊക്കെയാണെന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ കുറച്ചു കൂടി നമുക്ക് പ്രകൃതിയെ അറിയാനും അല്ലെങ്കിൽ നമുക്കൊരു ഫോട്ടോഗ്രാഫിക്ക് സെൻസുണ്ടാക്കാനും നമുക്ക് അങ്ങനത്തെ കുറേ സെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കീ മത്സരത്തിൽ കുറച്ചും കൂടി വിജയിക്കാനോ അല്ലേ കുറച്ചും കൂടി നമുക്ക് ഉപയോഗമുള്ളൊരു കാര്യങ്ങളെന്തെങ്കിലും ചെയ്യാനോ പറ്റുകയുള്ളു അപ്പോളങ്ങനത്തെ ഉപയോഗമുള്ള കാരണങ്ങൾ നമ്മളത് നോക്കണം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫോട്ടോഗ്രാഫി സെൻസിപ്പൊരു ഒരു ഒരു വസ്തു ഒരു വസ്തുവിൻ്റെ ഫോട്ടോ നമ്മളെടുക്കുകയാണെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ കറക്റ്റ് ആ ഫോട്ടോയുടെ നടുക്ക് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെ കുറച്ചു കൂടി ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കും എന്നുള്ള രീതിയിലോ വെയ്ക്കണം അപ്പം അതൊക്കെയാണ് ഫോട്ടോഗ്രാഫിക്ക് സെൻസിപ്പോൾ ഫോട്ടോഗ്രാഫി സെൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിലെല്ലാവരും ചെയ്യാൻ നോക്കുക എല്ലാവരും ചെയ്ത് ചെയ്ത് ചെയ്ത് കാരണം എന്നാലേ നമുക്കിപ്പോൾ ഫോട്ടോഗ്രാഫി മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റുകയുള്ളു പിന്നെ ഇത് വിശദീകരിക്കാനുള്ളതാണെ എനിക്ക് കുറച്ചു കൂടി അറിയത്തില്ല കാരണം എന്താണെന്നു പറഞ്ഞാൽ ഞാനിങ്ങനത്തൊരു സാധനത്തിനിതു വരെ പോയിട്ടില്ല പക്ഷെ പങ്കെടുക്കണമെന്നതിയായ ആഗ്രഹമുണ്ട് ഭാഗ്യം കിട്ടിയിട്ടില്ല പിന്നെ ഇതേ പോലത്തുള്ള സംഭവങ്ങളൊന്നും ഓപ്പർച്യൂണിറ്റീസൊന്നും നമ്മളിതു വരെ കണ്ടിട്ടില്ല ഫണ്ടുകൾ മാത്രമേ നമുക്കിങ്ങനെ പോകാൻ പറ്റുകയുള്ളു ഇതു വരെ ഇങ്ങനെ കാണാത്തൊരു സാധനമായതു കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ എപ്പോഴും ഇതേ പോലെ കിട്ടുന്നൊരു ഭാഗ്യമല്ല ഇന്നിപ്പം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലുള്ളൊരു ഒരു ആധിപത്യം കിട്ടുകയാണെങ്കിലതൊരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ടായാലും നമുക്ക് ഇതിനെടുക്കാവുന്നതാണ്